ഹാ ബിൻസി ആ ഞാൻ ജെർമ്മനീന്ന് വരുകയാണ് ഈ ഇവിടെ വന്നപ്പളാണ് ഇങ്ങനെ മസാജിനെ കുറിച്ചും തിരുമ്മലിനെ കുറിച്ച് യോഗയെ കുറിച്ച് കേട്ടു അതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചൊന്ന് പറയാമോ അത് ഞാൻ ചോദിക്കുന്നത് ഈ തിരുമ്മലാവുമ്പം ആയുർവേദിക് തൈലങ്ങൾ ദേഹത്ത് പുരട്ടി തിരുമ്മുക പിന്നെ കിഴി വെക്കുക ആ അത് അത് അതെന്തിന് വേണ്ടിയാണ് ശരീരത്തിൻ്റെ വേദന പോവാനാണോ അതോ ആ ആ

ആ ഹാ അടുത്തത് വേ ആ പിന്നെ ഞാൻ ചോദിക്കുന്നത് ഡയറ്റ് വേറെ ഞാൻ ഇച്ചിരി ശരീരം ഉള്ളയാളാണ് വെയിറ്റുള്ളയാളാണ് അന്നേരം എനിക്കീ എനിക്ക് വെയിറ്റ് കുറക്കാനും ബോഡി ഷേപ്പ് വരുത്താനും അതിന് പറ്റിയെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ അവിടെ ആയുർവേദിക് മരുന്നതിന് വേണ്ടി എന്തേലും കൊടുക്കുന്നുണ്ടോ അങ്ങനെ വല്ല ഉള്ള സംവിധാനങ്ങളും എന്തേലുമുണ്ടോ ഇല്ല ആ ആ ഇത് ഈ തിരുമ്മലിനും തിരുമ്മൽൻ്റെയൊക്കെ കൂടെ അതായത് കിഴി കുത്ത് തിരുമ്മൽ ആ കൂട്ടത്തിൽ നമ്മളെ മരുന്നുകളൊന്നും കൊടുക്കുന്നില്ല അല്ലേ അത് ശരി ആ ആ ആ അതെത്ര ദിവസത്തെ ഒരു ട്രീറ്റ്മെൻറ്റായിരിക്കും ഇത്

ചെയ്യുന്നത് അത് ചെയ്ത് കയിഞ്ഞിട്ട് നോക്കിയായിരിക്കും ചെയ്യുന്നത് അല്ലേ ആ ആ അങ്ങനെ എകദേശമൊരു ഞാനൊരേഴ് ദിവസത്തേനാ ട്രീറ്റ്മെൻറ്റെടുക്കുന്നത് എങ്കിൽ എനിക്കെത്ര രൂപ ആ എത്ര രൂപയാവും എമൗണ്ട് ആ ഹാ ഹാ എന്നാലും ഏകദേശമൊരു റേറ്റിന് പറയാൻ പറ്റോ ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് രൂപായാകും അടുത്താവും അല്ലേ ആ അന്നേരം എനിക്ക് ഏഴ് ദിവസത്തെ എനിക്കൊരു ട്രീറ്റ്മെൻറ്റാ വേണ്ടിയത് ആ ആ ഞാൻ എന്ന് ജോയിൻ ചെയ്യണം എനിക്ക് ഒരു ഒരു മാസത്തെ ലീവേ ഉള്ളൂ അങ്ങനെ എനിക്ക് ആ

ആ ആ അഡ്മിറ്റാവുമ്പോൾ ഞാനത് പ്രത്യേകിച്ച് ഡ്രസ്സോ കാര്യങ്ങളോ കൊണ്ട് വരണോ ഫുഡ് നമ്മളെ നിങ്ങളവിടുന്ന് തരിക ആ അത് ശരി ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഡ്രസ്സെന്തെങ്കിലും കൊണ്ട് വരണോ നമ്മൾ ആ ഡേയ്സ്

അത് ശരി ആ ആ നമുക്കന്നേരം ഇടാനുള്ള ഡ്രസ്സ് നമ്മൾ കൊണ്ട് വരണം ആ അത് ശരി നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാൻ ഈ ഏഴ് ദിവസവും അല്ലേ ആ ആ അത് ശരി ആ എന്നാൽ ഞാൻ ഒന്നതിനെ കുറിച്ച് ഒന്നൂടൊന്ന് സ്റ്റഡി ചെയ്യട്ടേ എന്നിട്ട് ഞാൻ വിവരങ്ങൾ അറിയിക്കാം വിവരം ആ ആ ആ ചെയ്യാണ്

ആ അത് ഞാനതിനെ കുറിച്ച് ഒന്നൂടൊന്നാലോചിച്ചിട്ട് വീട്ടിൽ സംസാരിച്ചിട്ട് ഞാൻ കോള് ചെയ്യാമേ കേട്ടോ ശരിയേ